സാധാരണ നമ്മളൊരു വീട് പണിയണ സമയത്ത് ആദ്യം നോക്കുക വാസ്തുവാണ് വാസ്തു നോക്കി അതിനുശേഷം ആയിരിക്കും നമ്മള് തറയിടൽ ഒക്കെ തുടങ്ങണത് അപ്പോൾ നമ്മള് അങ്ങനെ വീട് കെട്ടണ സമയത്ത് നമ്മള് വീടിന്റെയടുത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് എന്തായാലും അറിഞ്ഞു വയ്ക്കണം ഹോസ്പിറ്റലുകൾ ഉണ്ടോ അടുത്ത് മാർക്കറ്റുണ്ടോ അതുപോലെ സ്കൂളുകള് അങ്ങനെ പല കാര്യങ്ങളും നമ്മള് നോക്കിയിട്ട് വേണം ഒരു സ്ഥലത്ത് വീട് വയ്ക്കാൻ ആയിട്ട് അപ്പോൾ സ്ഥലം അതുപോലെ തന്നെ സ്ഥലത്തിന്റെയടുത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല നമ്മള് വീട് വയ്ക്കണ സമയത്ത് കാരണം അടുത്ത് കാടുള്ള പ്രദേശങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് നമ്മൾ അതിനുള്ള പ്രികോഷൻസ് എടുക്കേണ്ടിവരും അതുപോലെ തന്നെ മഴ മഴ വരുന്ന സമയത്ത് വെള്ളം കയറാത്തൊരു സ്ഥലമായിരിക്കണം വെള്ളപ്പൊക്കം ഒന്നും അധികം ബാധിക്കാത്ത സ്ഥലങ്ങളിലായിരിക്കണം നമ്മള് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് വീട് വയ്ക്കാനായിട്ട് പിന്നെ വീട് വയ്ക്കുമ്പോൾ പർട്ടിക്കുലർ ആയിട്ട് വീട് വയ്ക്കുന്ന ആളുകളുടെ താൽപര്യങ്ങൾ എന്ന് പറഞ്ഞ് വെച്ചാൽ ചിലവർക്ക് ചെറിയ വീടായിരിക്കും ഇഷ്ടം ചിലർക്ക് വലിയ വീടുകൾ ആയിരിക്കും ഇഷ്ടം അവര് അവരെ സ്വന്തം താല്പര്യത്തിൽ പല മാറ്റങ്ങളും വീടുകളിൽ വരുത്താറുണ്ട് പിന്നെ എല്ലാ വീടുകളിലും ഇവിടെ കാണാൻ പറ്റണത് പൂജാമുറികൾ ഒക്കെ ഉണ്ടാവും അവർക്ക് സോ നമ്മള് സെപ്പറേറ്റായിട്ട് പൂജാമുറികൾ അതുപോലെത്തന്നെ അടുക്കള അതുപോലെ തന്നെ റൂം അങ്ങനെയൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം പണിയുകയാണ് സാധാരണ ചെയ്യാറ് സോ ഇപ്പോഴൊക്കെ പുതിയ ടെക്നോളജികളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും അധികം ചിലവില്ലാതെ തന്നെ നോർമൽ ആയിട്ട് ഒരു വീട് പണിയാൻ നമുക്ക് സാധിക്കും അതിനനുസരിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഒക്കെ നിറയെ വന്നിട്ടുണ്ട് അതുകൊണ്ട് വീട് വയ്ക്കല് നമുക്ക് നന്നായി അന്വേഷിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള രീതിയില് വീട് പണിയാനായിട്ട് സാധിക്കും ആദ്യമൊക്കെ പറഞ്ഞാൽ ഗ്രാമത്തിൽ പൊതുവേ കാണാൻ സാധിക്കണ ഓട്ടു പുരകളാണ് നമ്മളൊക്കെ പണ്ടൊക്കെ പണിയുക ഓട്ടുപുരകളായിരുന്നു ഞാൻ താമസിച്ചിരുന്ന വീടും ആദ്യം ഓട്ടുപുരയായിരുന്നു അത് നന്നായി ഓട്ടില് പണിഞ്ഞ് ഓടൊക്കെ മേഞ്ഞിട്ട് സാധാരണ കല്ല് കൊണ്ട് വീട് കെട്ടിയ വീടായിരിക്കും അത് പറഞ്ഞാൽ നമുക്ക് ഫാൻ ഒന്നും വേണ്ട നല്ല തണുപ്പ് നോർമൽ ആയിട്ട് തന്നെ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാകും തറയൊക്കെ ചാണകം കൊണ്ട് മെഴുകിയ തറയൊക്കെയായിരിക്കും പണ്ട് വീടുകളെന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ പണ്ട് പിന്നെ നോർമലി കണ്ടു വരുന്നത് ഓലപ്പുരകളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോഴൊക്കെ നല്ല വല്ല്യ വല്ല്യ വീടുകളാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് രണ്ടു നില വീട് അതുപോലെ തന്നെ കണ്ടമ്പററി ഹൗസ് അതുപോലെ തന്നെ നല്ല ഇപ്പോഴത്തെ രീതിയിൽ നല്ല വലിയ ഓടിട്ടുള്ള വീടുകളും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പഴയ രീതിയിലുള്ള വീടുകൾ ഇപ്പോൾ കാണണത് വളരെ കുറവാണ് ഇപ്പോൾ ഒക്കെ വലിയ വലിയ വീടുകളാണ് പുതിയ മോഡലിലുള്ള വീടുകളാണ് പണിയുന്നത്